ചില സമയങ്ങളിലിത്തരത്തിൽ സംഭവിക്കാറുണ്ട് നമ്മളുടെ പാചകവിധി ശരിയായി വരാറില്ല അത്തരങ്ങളിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് നമ്മൾ അതിൽ നമ്മുടേതായിട്ടുള്ള പുതിയ പുതിയ പദാർത്ഥങ്ങൾ ചേർത്ത് പുതിയ പുതിയ രസക്കൂട്ടുകളിലേക്ക് ചേർത്ത് വേറൊരു തരത്തിലെ വിഭവം റെഡി ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതേത് സാധാരണ ഇപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു വിഭവം അതിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി അല്ലെങ്കില് അതിന്റെ ഒരു പാചകവിധി കണ്ടെത്തി നമ്മൾ കുക്ക് ചെയുകയായിരിക്കും ചെയ്യാറുള്ളത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ പാചകവിധിയില് പറയുന്ന എല്ലാ വസ്തുക്കളും നമ്മളുടെ കയ്യില് ഉണ്ടാകണം എന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദര്ഭങ്ങളില് ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടായിരിക്കും പാചകം ചെയ്യുക അത്തരത്തിലുള്ള സന്ദര്ഭങ്ങളില് ഉദ്ദേശിച്ച നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിധത്തിലേക്ക് നമ്മുടെ വിഭവം വരാൻ സാധ്യയില്ല അപ്പം നമ്മൾക്ക് നമ്മളുടെ ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിൽ പുതിയ എന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു വിഭവം അതിൽ ചേർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു രസം പുളിയോ ഉപ്പോ മധുരമോ അങ്ങനെ അതിന് യോജിച്ചത് എന്താണോ അത്തരത്തിലൊന്നത് ചേർത്ത് നമ്മളത് പരുവപ്പെടുത്തി രുചികരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയാണ് ചില സന്ദര്ഭങ്ങളില് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വളരേ എന്താ ശരിയല്ലാതെ വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്